വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ശേഖരിക്കുന്നത് അന്നേ ഒരു ആരാധനയും ഒരു ക്രൈസും ഇന്നത് ചെയ്യണം ഇന്നത് കളക്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റാമ്പുകൾ അന്ന് തൊട്ടേയുള്ള ചെറിയ പ്രായം തൊട്ടേ ഒരു അഞ്ച് ആറേഴ് വയസ്സ് തൊട്ടേ ഇങ്ങനെ ഓരോന്നും അപ്പം വരുന്നവരോടും പോകുന്നവരോടും കിട്ടുന്നതും കിട്ടാവുന്ന ബാക്കിയുള്ള സഹോദരങ്ങളോടും കസിൻസിനോടും എല്ലാം പറഞ്ഞ് ഓരോന്ന് ശേഖരിച്ച് ശേഖരിച്ച് വെക്കും പഴമയുടെ നാണയങ്ങളും അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പ്രവർത്തിക്കാൻ ഇന്നോളം കാലപ്രായം എത്തുന്നിടം വരെ നമുക്ക് ആ ഒരു കളക്ഷൻസ് കൊണ്ടുപോവാനും ഓരോ പ്രാവശ്യം അത് ഓരോന്ന് വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ ഓരോ നമ്മുടെ പ്രായത്തിനുസരിച്ച് തന്നെ നമ്മുടെ കളക്ഷൻസ് കൂടി കൂടിക്കൂടി വരുമ്പോൾ നമുക്കതിലുണ്ടാവുന്ന ഒരു സന്തോഷം എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് നമുക്ക് വളരെയധികം അത് കാണുംതോറും നമ്മുടെ കളഷൻ ഇതിത്രത്തോളം വലുതായി വലുതായി വരുന്നുണ്ടല്ലോ വ്യത്യസ്ത തരത്തിലുള്ള എല്ലാം ശേഖരിക്കാൻ കഴിയുന്നു എന്നുള്ള എന്ന ഒരു ആത്മവിശ്വാസം സന്തോഷവും നമ്മുടെ പ്രായത്തിനൊപ്പം തന്നെ നമ്മളിലേക്ക് വരും